ഓട്ടംതുള്ളൽ മാർഗ്ഗംകളി അതുപോലെ പ്രച്ഛന്ന വേഷം

കോൽക്കളി പിന്നെ വട്ടക്കളി പിന്നെ പാ കമ്പ് വലിച്ച് കളിക്കുന്ന കളികൾ എന്നീ കളികളും അതുപോലെ തന്നെ കുച്ചിപ്പുടി ഭരതനാട്യം അതുപോലെ തന്നെ പല ചവിട്ട്നാടകം അങ്ങനെ പല രീതിയിലുള്ള കളികളും ഇപ്പോൾ നമ്മുടെ സമൂഹത്ത് നിന്ന് മാറി പോകുന്നു അത് അനേകം തലമുറകൾക്ക് വലിയൊരു നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന എന്നതാണ് ഇപ്പോഴത്തെ കലാരൂപങ്ങൾ പല ഇപ്പം തന്നെ വാൾപയറ്റ് ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന കലാരൂപമാണ് ഓക്കെ